ഒരൂ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളാദ്യം ഒന്ന് പ്ലാൻ ചെയ്യും ഏത് എന്തു പടമാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പം നമുക്കത് വരയ്ക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടോ അപ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പോൾ അത് ആപ്റ്റാണെങ്കിൽ നമ്മൾ ഓക്കെ അത് വരയ്ക്കാമെന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെ വരയ്ക്കാം എന്നു നമ്മൾ ചിന്തിച്ചിട്ട് ഓക്കെ ആ പടമെന്നെക്കൊണ്ട് വരയ്ക്കാൻ പറ്റും എന്ന് ഒരു ഉറപ്പായിക്കഴിയുമ്പം ഉറപ്പായിക്കഴിഞ്ഞ് നമ്മൾ അതിനേക്കുറിച്ച് കുറച്ച് റിസേർച്ച് ചെയ്യും ആ പടത്തേക്കുറിച്ച് അങ്ങനെെയൊരു പടത്തിൻ്റെ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഡീറ്റേയ്ൽസും നമ്മൾ കളക്റ്റ് ചെയ്യും ആദ്യം നമ്മൾ ആ പടം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്നു നമ്മൾ സെർച്ച് ചെയ്യും എന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും ഇപ്പോൾ ഏതെങ്കിലുമൊരു പത്രക്കടലാസിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊരു ബുക്കിലൊക്കെ ആ പടമുണ്ടെങ്കിൽ നമ്മൾ ആ പടം കണ്ടുപിടിച്ചെടുത്ത് നോക്കും നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതെടുക്കുകയുള്ളു ഇനി നമ്മളുടെ കയ്യിലങ്ങനെ ഒരു പിക്ച്ചറും അതിനേക്കുറിച്ചുള്ള ഒരു ഡീറ്റേയ്ൽസും ലഭിക്കത്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം നമ്മൾ ഓൺലൈനിൽ സേർച്ച് ചെയ്യും ഇപ്പോൾ പിൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നോക്കി നമ്മൾ ആ പിക്ച്ചറ് എടുക്കും പിക്ച്ചറ് കണ്ടു പിടിച്ചെടുത്തിട്ട് നമ്മൾ ആ അതിൻ്റെ ഫുൾ ഡീറ്റേയ്ൽസ് എടുക്കും അതിൻ്റെ ബാഗ്രൗണ്ട് കളറ് ഏതൊക്കെ പേയിൻ്റുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏതൊക്കെ കളറുകളാണെന്നുള്ളത് അതുപോലെ അവന് എത്രത്തോളം ഡീറ്റേയ്ലിങ്ങ് ആ പടത്തിന് അങ്ങനെ അങ്ങനെയെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് നമ്മളത് വരയ്ക്കാൻ തുടങ്ങത്തുള്ളു പിന്നെ അത് നമ്മളേക്കൊണ്ട് വരയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമാണ് നമ്മൾ വരയ്ക്കത്തുള്ളു ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ് അപ്പോൾ ചില ചില ചില സംഭവങ്ങൾ എല്ലാവർക്കുമൊന്നും വരയ്ക്കാൻ പറ്റത്തുണ്ടാവില്ല എല്ലാവർക്കും പ്രത്യേകമായൊരു മൈൻ്റായത് വ്യത്യസ്തമായ മൈൻ്റായതു കാരണം ഓരോരുത്തർക്കും വരയ്ക്കാവുന്നതിൻ്റെ അല്ലെങ്കിൽ ഓരോരുത്തരുടേയും ഭാവന ഓരോ രീതിയിലായതു കാരണം ഓരോരുത്തരുടേയും കഴിവിനും വ്യത്യസ്തതകളുണ്ട് അപ്പോൾ ചില ചില സംഭവങ്ങൾ ചിലർക്ക് വരയ്ക്കാൻ കൂടുതൽ ഇഷ്ടമുണ്ടായിരിക്കും ചിലത് വരയ്ക്കാൻ തീരെ ഇഷ്ടമുണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാം എന്നേറ്റിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കുറേ ഡിപ്രഷനിലേക്കൊക്കെ നമ്മൾ പോകും കാരണം നമ്മൾ വരയ്ക്കുന്നത് എന്നു പറയുന്നത് നമുക്കിഷ്ടമുള്ള ഒരു കാര്യാമാണ് പക്ഷേ നമുക്കിഷ്ടിമില്ലാത്തൊരു കാര്യം വരച്ചിട്ട് അത് നമുക്ക് കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുവേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ പിന്നെ ഓൺലൈൻ ഉറവിടങ്ങൾ നോക്കുന്നത് നമ്മൾ മേയിനായിട്ടും പിൻട്രസ്റ്റാണ് അല്ലെങ്കിൽ ഗൂഗിളിൽ സേർച്ച് ചെയ്തു നമ്മൾ ആ പടം കണ്ടുപിടിക്കും അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മളെന്തെങ്കിലും പത്രത്തിലൊക്കെ ഉണ്ടോയെന്നു നോക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻസോ പണ്ടത്തെ പുസ്തകങ്ങളോ എല്ലാം റെഫർ ചെയ്തു നമ്മൾ കണ്ടുപിടിക്കും അടുത്തിടെ വരച്ചൊരു ചിത്രമെന്നു പറയുന്നത് അടുത്തിടെ ഞാൻ വരച്ചൊരു പടം ഒരൂ അത് ഗാഗുൽത്തായിൽ അതായത് ഈശോ ചെമ്മട്ടി അടിയൊക്കെ ഏറ്റ് തലയിൽ മുൾക്കിരീടമൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന ഈശോയുടെ ഒരു മുഖമാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിന് അതിനേ സംബന്ധിച്ച് നമ്മൾ കുറേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വരച്ചു ഏറ്റവും വൃത്തിയായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നൊരു പടം ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ചു അപ്പം പിൻട്രസ്റ്റിൽ നിന്ന് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റേയ്ൽസിങ്ങ് ഡീറ്റേയ്ലിങ്ങെല്ലാം നോക്കി എവിടെയൊക്കെയാണ് എന്തൊക്കെ മുറിവുകളാണ് ഈശോയുടെ മുഖത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് എവിടെയൊക്കെയാണ് ബ്ലഡ് സ്റ്റെയ്ൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത് എത്ര തിക്കായിട്ടാണ് മുടി വരച്ചിരിക്കുന്നത് എത്ര തിക്കായിട്ടാണ് മുൾക്കിരീടം അതിൻ്റെ മുള്ളുകളെക്കെ അലൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ പുരികം പുരികത്തിൻ്റെ എന്താ ഷേയ്പ്പ് കണ്ണ് കണ്ണിലേ കളേഴ്സ് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് എല്ലാവരേയും കണ്ണിന് ബ്ലാക്ക് കളറാണ് പീപ്പിളിന് കൊടുക്കുക പക്ഷേ അതാണോ അല്ലയോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഏതാണ് ആപ്റ്റെന്നു നോക്കുന്നു അതുപോലെ മുഖത്തിന് കൊടുത്തിരിക്കുന്ന ആ കളർ ഷെയ്ഡ് അങ്ങനെയെല്ലാം നോക്കിയിട്ട് പിന്നെ മുഖത്തിൻ്റെ ഷേയ്പ്പ് ഒരു ഷേയ്പ്പ് റെക്കഗ്നൈസ് ചെയ്ത് അങ്ങനെ ഷേയ്പ്പ് കണ്ടുപിടിച്ച് അങ്ങനെ അതെല്ലാം ഞാൻ നമ്മൾ ഓരോന്നും ഓരോ ഇതിൽ നമ്മുടെ മൈൻ്റിൽ സ്റ്റോർ ചെയ്തു വെച്ചിട്ട് ചെയ്തു അതൊരു മുടി മുടിയുടെ ലെങ്ത് തിക്നെസ്സ് കളറ് അതൊക്കെ ഇങ്ങനെ ഓർത്തു വെച്ചു പിന്നെയെന്താ ഉള്ളത് പിന്നെ നെക്ക് നെക്ക് പോർഷൻ നെക്ക് പോർഷനെത്ര എന്താണ് വൈഡാണ് എത്ര നെക്ക് ബീൻസ്സ് വിസിബിളാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് അത് അതും നമ്മുടെ മൈൻ്റിൽ സ്റ്റോർ ചെയ്തു വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങും പിന്നെ വരയ്ക്കാൻ തുടങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെടുക്കുന്ന ഈ പേപ്പർ ആല്ലെങ്കിൽ നമ്മുടെ ബോഡിൻ്റെ ലെങ്ത്ത് ബോഡിൻ്റെ ലെങ്ത്ത് അത് നോക്കിയിട്ട് നമ്മൾ അതു നോക്കിയിട്ടാണ് നമ്മൾ ഫേസിൻ്റെ ഒരു ഏകദേശം വലിപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യുക അങ്ങനെ അതു നോക്കി സെറ്റ് ചെയ്തിട്ടു വേണം നമ്മൾ വരയ്ക്കാനായിട്ട് തുടങ്ങാൻ അപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മളാദ്യം പെൻസിൽ ഡ്രോയിങ്ങേ ചെയ്യാവുള്ളു അതു കഴിഞ്ഞിട്ടാണ് നമ്മൾ പെയിൻ്റിങ്ങിലേക്ക് വരത്തുള്ളു അങ്ങനെ ചെയ്ത് കമ്പ്ലീറ്റ് ചെയ്തു